അതെ നമ്മൾ കൂടുതൽ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കു നടുവേദന തോളുവേദന അതുപോലെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ കൂടുതൽ കുറച്ചു കുറച്ചു കൂടുതൽ ദൂരം പോയി പിന്നെ ചില ചിലയിടത്തു നിർത്തി പിന്നെ നമ്മൾ അവിടെ വിശ്രമിച്ച് അതുപോലെ നമ്മൾ വിശ്രമിച്ച് അതുപോലെ എന്തെങ്കിലും കൂടുതലായിട്ടു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളതിനു വേണ്ടിയുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ അതുപോലെ മെഡിസിൻസ് അതുപോലെ ഓയിന്റ്മെൻറ് അതുപോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും പിന്നെ പിന്ന നമ്മുടെ കൂടുതല് തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ കോട്ട് അതുപോലെ നമുക്ക് സെക്യൂരിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും എന്തൊക്കെ സാധനങ്ങൾ വേണമോ അതൊക്കെ നമ്മള് കൊണ്ടുപോകും അതുപോലെ ലഘുവായ ഭക്ഷണങ്ങൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ അതുപോലെ നേരം കൂടുതൽ നേരം നിൽക്കുന്ന ഭക്ഷണങ്ങൾ കേടു വരാത്ത അങ്ങനത്തെ ഭക്ഷണങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെയാണു കൊണ്ടുപോകുക പിന്നെ ഹോട്ടലുകളിലൊക്കെ നിർത്തി നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങള് അതുപോലെ നല്ല ഇഷ്ടപ്പെട്ട മന്തി അതുപോലത്തെ ഭക്ഷണങ്ങളൊക്കെയാണു കഴിക്കുക പിന്നെ നമ്മള് ആരോഗ്യം നിലനിർത്തുന്നത് എന്താണ് നമുക്കു കൂടുതൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത്യാവശ്യ സാധനങ്ങൾ അതുപോലെയൊക്കെ നമ്മള് കയ്യിൽ കരുതും പിന്നെ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള എമർജൻസി ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്കു കാണിക്കും ഹോസ്പിറ്റലില് കാണിക്കും പിന്നെ നടുവേദന തോളുവേദന അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ ബന്ധപ്പെട്ട് അതിനുള്ള മെഡിസിൻസൊക്കെ കയ്യിൽ കരുതി അതുകൊണ്ട് നമ്മൾ പോകണം പിന്നെ റിസോർട്ട് അങ്ങനെയൊക്കെ ഇടയിലെവിടുന്നേലൊക്കെ റിസോർട്ടെടുത്ത് അവിടെ വിശ്രമിക്കാനും അതുപോലെ നമുക്ക് ഫ്രഷ് ആവാനും അങ്ങനെയൊക്കെ നമ്മൾ സൗകര്യം കരുതും അങ്ങനെയൊക്കെ കരുതണം നമ്മൾ അതുപോലെ നല്ല ഫുഡുകൾ നല്ല ഭക്ഷണങ്ങളെല്ലാം കഴിക്കാൻ നമ്മൾ കൂടുതലാഗ്രഹിക്കുകയും കൂടുതൽ ഭക്ഷണങ്ങൾ നമ്മൾ വേടിക്കുകയും നമ്മൾ കൂടുതൽ എക്സ്പെൻസീവായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കും നല്ല നല്ല ഭക്ഷണങ്ങൾ അതുപോലെ സാലഡ് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ കഴിക്കും പിന്നേ ഹോട്ടലുകളിലൊക്കെ നിർത്തി പിന്നെ നമ്മൾ നല്ല നല്ല നോൺ വെജ് വെജ് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കും നല്ല നല്ല ഭക്ഷണങ്ങളും അതുപോലെ നല്ല നല്ല യാത്രകളും ബൈക്കിലൂടെ ബൈക്കിലൂടെ നമ്മൾ കൂടുതൽ കാഴ്ചകളും കണ്ട് നമ്മൾ പോകും നല്ല നല്ല സ്ഥലങ്ങളിലേക്ക്